ഹലോ ആ ഹലോ പറഞ്ഞോളൂ കേൾക്കാം പറഞ്ഞോളൂ ആ ഹാ അതെ മായേടെ മമ്മിയാണല്ലോ മായേടെ ടീച്ചർ ആണോ സംസാരിക്കുന്നത് ആണോ

ആ ഓക്കെ ആ ടീച്ചറെ ആ എപ്പളാണ് ഈ ഉഴപ്പ് തുടങ്ങിയത് അധിക നാളായോ അതോ ഇപ്പം പെട്ടെന്ന് ഓ എ ആ ആ ഹാ ആ ഓക്കെ അത് നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ടീച്ചറ് ചിലപ്പോൾ അവളെ പ്രോത്സാഹിപ്പിച്ചുകാണും അല്ലെ അപ്പോൾ അതുകൊണ്ട് ഇപ്പം വീണ്ടും ഉഴപ്പി ഇപ്പം വീണ്ടും ഉഴപ്പിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം കൂട്ടുകെട്ട് എങ്ങനെയുണ്ട് ടീച്ചറേ ക്ലാസ്സില് പിള്ളേരുടെ

ആ ഹാ ഹാ

ആ ഓക്കെ എനിക്ക് മനസ്സിലാവും ടീച്ചറെ ടീച്ചറ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നവെച്ചാൽ ഞാൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം പിന്നെ കൂട്ടുകെട്ട് എങ്ങനെയാണെന്ന് എനിക്കു അറിയില്ലല്ലോ കാരണം അവിടെ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന കൂട്ടുകാരുടെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ കൂടുതൽ സംസാരിക്കും കൂടുതൽ ഇതാവുകയും ചെയ്യോമല്ലോ അപ്പം ടീച്ചറ് അതുംകൂടെ ഒന്ന് ശ്രദ്ധിക്കണം ആ കൂട്ട് എങ്ങനെയുണ്ട് പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കുട്ടി വീട്ടിൽ വന്നുകഴിയുമ്പഴത്തേക്കും ഞാൻ മോളോട് സംസാരിക്കാം മോളെ ക്ലാസിൽ ടീച്ചറ് പറയുന്ന അനുസരിക്കണം അല്ലെങ്കിൽ കൂട്ടുകാരോട് മിതമായിട്ടേ സംസാരിക്കാവുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞ് കൊടുക്കാം നമുക്ക് ഇപ്പത്തെ കാലത്ത് കുട്ടികളെ ഉപദേശിക്കാനല്ലേ പറ്റൂളൂ നമുക്ക് ഒത്തിരി വഴക്ക് പറയാനോ അടിക്കാനോ ആ അപ്പം അത് ഒന്ന് ഉൾക്കൊള്ളുന്നില്ലല്ലേ ആ ഓക്കേ ഉൾക്കൊള്ളുന്നില്ല അംഗീകരിക്കുകയും ആ അനുസരണക്കേടായിപ്പോയി അല്ലേ അനുസരിക്കുന്നില്ല എന്ന ഒരു ഇത് ആ ആ ഓക്കെ ഓക്കെ ഞാനത് മനസിലാക്കുന്നു ടീച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം പറയാതിരുന്നാൽ ഞാൻ അറിയില്ലല്ലോ അപ്പോൾ അത് പറയണം ഞാൻ മാക്സിമം പറഞ്ഞ് മനസിലാക്കാം കുഞ്ഞിനെ ആ ആ ആ ടീച്ചറ്

ആ ഓക്കെ ഇതിപ്പം വീട്ടിലിപ്പം ഞാൻ നോക്കിയിട്ട് വീട്ടിൽ അങ്ങനെ കാണിക്കുന്നില്ല അപ്പോൾ എനിക്കറിയില്ല ഇപ്പം സ്കൂളിൽ വന്ന് കഴിയുമ്പോൾ ഉള്ള പ്രശ്നങ്ങളായിരിക്കാം അത് അത് എന്തായാലും ഞാൻ സംസാരിച്ചോളാം കാരണം കുഞ്ഞിനെ നന്നായിട്ട് കൊണ്ട് വരേണ്ട ആ ആ ആ ഓക്കെ നമുക്ക് അതായിരിക്കാം പക്ഷെ എങ്കിലും ഞാൻ സംസാരിച്ചോളാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചർ എന്നോട് പറയണം പറഞ്ഞാലല്ലേ എനിക്കവളെ തിരുത്താൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഉഴപ്പ് അങ്ങേയറ്റം ആയി കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാൽ നമുക്കത് പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ എന്നോട് പറയുക എനിക്കതിൽ ബുദ്ധിമുട്ടില്ല ടീച്ചർന് കൊടുക്കേണ്ട കറക്ഷൻസ് ടീച്ചർന് കൊടുക്കാം ഒരു കുഴപ്പവും ഇല്ല ടീച്ചർ എന്ത് കാരണം ഇപ്പത്തെ കാലഘട്ടത്തിനനുസരിച്ച് എന്ത് ശിക്ഷാവിധികൾ ചെയ്യണം അതൊക്കെ ചെയ്യാം കുഴപ്പം ഒന്നും ഇല്ല ഞാനതിനൊരു ഇതായിട്ട് നിൽക്കില്ല പക്ഷെ പിന്നെ നമ്മുടെ ഇതിൽ ഉത്തരവാദിത്വത്തിൽ നമ്മളെന്താണ് കുഞ്ഞിനെന്താണ് പറ്റിയിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും കൂട്ടുകെട്ടിൻ്റെ ആണോ വീട്ടിലെ പ്രശ്നങ്ങളാണോ നമുക്ക് അറിയില്ലല്ലോ സ്കൂളിലേക്ക് വരുമ്പളുണ്ടാവുന്ന കൂട്ടുകെട്ടാണോ ഒന്നും നമുക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് നന്നായിട്ട് ശ്രദ്ധിച്ചോളാം ആ അതെ ആ ആയിരിക്കാം ആ വീട്ടിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല ആൾ അതുകൊണ്ട് എനിക്കറിയില്ല ആ അപ്പം അതുകൊണ്ട്

ആ ആ ഹാ ഓക്കെ ആ ആ ആ ഒരൂ ആ ഓക്കേ ഹാ ആ താനെന്തോ ആണെന്ന് മറ്റുള്ള മുന്നിലിങ്ങനെ ആ ആ ഓക്കെ ഓക്കെ അപ്പം അത് പറഞ്ഞതിന് വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിനുവേണ്ട കറക്ഷൻസ് കൊടുത്തോളാം പറഞ്ഞ് ഞാൻ എൻ്റെ തിരുത്തലുകൾ കൊടുത്തോളാം കേട്ടോ അതിനു വേണ്ട എല്ലാ കാര്യം ചെയ്തോളാം ഞാൻ ഇടയ്ക്ക് വന്ന് അന്വേഷിക്കാം ഞാനൊന്ന് സ്കൂളിലൊന്ന് വന്ന് കഴിയുമ്പോൾ അത് കുറച്ചുംകൂടെ നല്ലതായിരിക്കും ഞാൻ വന്ന് അന്വേഷിച്ചോളാം വന്ന് ടീച്ചറിനെ കണ്ടോളാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം കേട്ടോ അത് ടീച്ചറിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാം പിന്നെ ടീച്ചർന് ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാം അതിനുള്ള അധികാരം ടീച്ചർനുണ്ട് കുഴപ്പം ഒന്നും ഇല്ല അതിൻ്റെ പേരിൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു വിഷയം ഉണ്ടാവില്ല കാരണം ടീച്ചറ് ശാസിച്ചെന്നോ ശിക്ഷിച്ചെന്നോ പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെന്ന നിലക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാവില്ല അത് ടീച്ചർന് ഞാൻ വാക്കുതരുന്നു ഞങ്ങൾ സംസാരിച്ച് ഞാൻ സംസാരിക്കാം അവളോട് കേട്ടോ

ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ നന്ദിയുണ്ട് ഇനി എപ്പം വേണമെങ്കിലും എന്നെ വിളിക്കാം അതിനകത്ത് ഒരു തടസ്സവും ഇല്ല ആ ഓക്കേ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവ്യം ടീച്ചർ ടീച്ചറ് അതെന്നോട് പറയുന്നതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ അതിപ്പം ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ എന്നോട് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം ഏത് അവസരത്തിലും എന്നെ വിളിക്കാം ഞാൻ വന്ന് ടീച്ചർനെ കണ്ടോളാം കേട്ടോ ഓക്കെ ശരി എന്നാൽ